കൃഷി എന്നതു കേരളത്തിൻ്റെ ഒരു തനതായ രൂപമാണ് അല്ലെങ്കില് കേരളത്തിൻ്റെ ഒരുപാട് ആളുകള് പണ്ടു കൃഷിക്കാരായിരുന്നു കേരളത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ആഘോഷമായ ഓണമെന്നതു തന്നെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടു കാർഷിക വിളവടപ്പുമായി ബന്ധപ്പെട്ടു കൊണ്ടുണ്ടായ ഒരു ആഘോഷമാണ് പിന്നീടാണതൊരു അതൊരു ആഘോഷമായി മാറിയത് ഇപ്പോള് കൃഷി ചെയ്യുമ്പോൾ നമുക്കു നല്ല വിത്തുകള് കിട്ടുക എന്നുള്ളതാണ് ഒരു കർഷകന് എപ്പോഴും നോക്കുന്നത് നല്ല ഭക്ഷണം ആളുകൾക്ക് ആരോഗ്യകരമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതായിരുന്നു ആദ്യ കാലങ്ങളില് ഇണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ അന്നു ജൈവവളം ചാണകം കമ്പോസ്റ്റുകള് തുടങ്ങി പ്രകൃതിക്കു യോജിച്ച പ്രകൃതിയോടു നല്ല രീതിയിൽ ഇണങ്ങിച്ചേര്ന്നു നിൽക്കുന്ന വളങ്ങളും കാര്യങ്ങളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് പിന്നീടുള്ള കാലങ്ങളില് പ്രത്യേകിച്ച് നമ്മുടെ ആളുകൾക്കു ഭക്ഷണം കൂടുതല് വേണം ഭക്ഷണം കുറവാണ് എന്ന രീതിയിലേക്കു വന്നപ്പോൾ പുതിയ വിത്തുകള് കണ്ടെത്തുകയും കൂടുതൽ ധാന്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതു മാത്രമായി ആളുകളുടെ ലക്ഷ്യം ആരോഗ്യകരമായ ഭക്ഷണമല്ല കൂടുതൽ ഭക്ഷണം അത്തരത്തിലൊരു ചിന്തയിലേക്കു വന്നതിനുശേഷമാണു പുതിയ രീതിയിലുള്ള ഹൈബ്രിഡ് വിത്തുകൾ ഇറക്കുകയും ഗവൺമെന്റിൻ്റെ അറിവോടെ തന്നെ ഒരുപാടു രാസവളങ്ങളും മറ്റും നിലവില് വരികയും ചെയ്തു ആദ്യ കാലങ്ങളില് ഈ രാസവളങ്ങൾ നല്ലതായിരുന്നു എങ്കിലും പിന്നീട് ഒരുപാട് ദൂഷ്യ ഫലങ്ങളുള്ള എന്നാൽ കൂടുതൽ വിത്തുകൾ ഉൽപാദിപ്പിക്കാൻ കഴിവുള്ള രാസഫലങ്ങള് വരുകയും അത് ഉപയോഗിച്ചതുകൊണ്ടുതന്നെ പല ആളുകളും പല രോഗത്തിനും അടിമയാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നും അതിനെ ആരും എതിർക്കുന്നില്ല കാരണം രാസവളം ഉപയോഗിക്കുന്നതുകൊണ്ടുതന്നെ നമുക്കൊരുപാട് ഉപയോഗങ്ങളുണ്ട് ഉപകാരങ്ങളുണ്ട് നല്ല വലിയ ധാന്യങ്ങള് അല്ലെങ്കില് ഒരുപാടു ഭക്ഷണം ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നു അതുപോലന്നെ മറ്റു ജന്തുജാലങ്ങളിൽ നിന്നു നമ്മൾ കൃഷി സംരക്ഷിക്കാൻ സഹായിക്കുന്നു പക്ഷെ എപ്പോഴും ഒരാരോഗ്യത്തിനും പ്രകൃതിക്കും യോജിച്ചു നിൽക്കുന്നത് അതു ജൈവവളം ഉപയോഗിക്കുന്നതാണ്